എനിക്ക് ചെറുപ്പം മുതല് സ്റ്റാമ്പിൻ്റെയും നാണയത്തിൻ്റെയും കളക്ഷനുണ്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുതൽ കാലം മുതല് എൻ്റെ ചെറുപ്പം മുതല് എനിക്കിതിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നു ഇന്ത്യൻ സ്റ്റാമ്പ്കളെല്ലാം താൻ ഏകദേശം ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ള എല്ലാ സ്റ്റാമ്പുകളും എൻ്റെ ശേഖരത്തിലുണ്ട് അതേപോലെതന്നെ നാണയങ്ങളുണ്ട് ഓട്ടനാണയം വരെയെൻ്റെ കയ്യിൽ കൈവശം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കള് എൻ്റെ സുഹൃത്തുക്കള് മുഖാന്തരം വിദേശ രാജ്യങ്ങളുടെ ലണ്ടൻ അതുപോലെതന്നെ യു എസ് സ്വിറ്റ്സർലാൻറ്റ് അങ്ങനെ ഉള്ള പല രാജ്യങ്ങളിലേയും സ്റ്റാമ്പ് കളക്ഷനെനിക്ക് നന്നായിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ അവരുടെ നാണയങ്ങളും വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങള് അവരുടെ സ്റ്റാമ്പുകള് അവരുടെ രൂപകള് നോട്ട്കള് ഇതെല്ലാം ഞാൻ ശേഖരൻ എൻ്റെ ശേഖരണത്തിലുണ്ട് ഡോളറ് ഡോളറിൻ്റെ മൂല്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നേരത്തേ ശേഖരിച്ച് വെച്ചിരുന്ന എൻ്റെ കയ്യിലുള്ള ഡോളറിനിത്രയും മൂല്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പം മൊത്തത്തില് എൻ്റെ ശേഖരം കണ്ടവരെല്ലാം ഇത്രയും മൂല്യമുള്ള ശേഖരം നിലവിലുണ്ടല്ലോ എന്നുള്ളൊരഭിപ്രായമാണ് പലരും പറഞ്ഞത് അപ്പം ശേഖരത്തിൻ്റെ മൂല്യമൊക്കെ ഞാനിപ്പഴാണ് മനസിലാക്കുന്നത് എൻ്റെ ബാല്യകാലത്ത് തോന്നിയൊരു ഹോബി ആ ബാല്യകാലത്ത് തോന്നിയ തുടങ്ങിയ ആ ഒരു ശേഖരം ഇപ്പോഴും എൻ്റെ കൈവശം ധാരാളമായി ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇപ്പോഴാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂല്യം എനിക്ക് മനസ്സിലാകുന്നതും അതനുസരിച്ച് ഞാൻ ധാരാളം എൻ്റെ സുഹൃത്ത്ക്കള് അതുപോലെ തന്നെ എന്നെ എൻ്റെ അധ്യാപകര് എൻ്റെ കുടുംബക്കാരൊക്കെ വരുമ്പോൾ എൻ്റെ ആൽബം ഞാനെടുത്ത് കാണിക്കുമ്പോൾ അവരൊക്കെ അതിശയത്തോടുകൂടി അതിന് അത് കാണുകയും എന്നെ അമിനന്ദി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ സ് ഇതിൻ്റെ പ്രാധാന്യം പുതു തലമുറയ്ക്ക് പകർന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞാന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനാൽബം സെറ്റ് ആക്കിയത് ഈ ആൽബത്തില് അതുപോലെ തന്നെ നാണയങ്ങളാണേലും അതെല്ലാം കവർ ചെയ്ത് പ്ലാസ്റ്റിക് കവറിൻറ്റകത്താക്കി ഒട്ടിച്ച് നല്ല ഭംഗിയായ്ട്ട് വെച്ചിരിക്കുകയാണ് അതും ആൽബം പോലെ ആൽബം രൂപത്തിൽ തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും എല്ലാ രാജ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാലത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് രാജ്യങ്ങളിലെ കറൻസി അതുപോലെതന്നെ നാണയം സ്റ്റാമ്പ് മുതലായവ എൻ്റെ ശേഖരത്തിലുണ്ട് എൻ്റെ മക്കൾക്കും ഞാനത് പകർന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കളോട് മക്കൾക്കുവതിനോട് വലിയ താല്പര്യമാണ് അങ്ങനെ നല്ലൊരു ശേഖരത്തില് മുമ്പോട്ട് കാര്യങ്ങൾ പോകുന്നു കൊഴപ്പോന്നൂല്ലാതെ നല്ല രീതീലാണ് അതിൻറ്റൊരു പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്

ഈ സ്റ്റാമ്പ് ശേഖരം തുടങ്ങിയത് ഒരു പ്രത്യേക താല്പര്യം ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷെ

തുടങ്ങി തുടങ്ങി വന്നപ്പഴ് ശേഖരണം ശേഖരം നന്നായിട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിനോട് ഭയങ്കര താല്പര്യം തോന്നുകയും വീണ്ടും വീണ്ടും മറ്റ് രാജ്യങ്ങളിലെ കറൻസി നാണയം അതുപോലെ തന്നെ സ്റ്റാമ്പുകൾ പിന്നെ മഹത് വ്യക്തികളുടെ ഇത് സ്റ്റാമ്പ്കള് അവരുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ഞാന് ശേഖരണത്തിലുണ്ട് എന്തായാലും കുഴപ്പമില്ലാത്തൊരു ആൽബം ഞാൻ ശെരിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഷോക്കേസിൽ ഞാൻ എല്ലാം അത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആര് വന്നാലും അതെടുത്ത് കാണിച്ച് കൊടുക്കുവാനുള്ള ആ ഒരു ഒരു ഒരു ഒരു എന്താ അതിന് പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ അതെനിക്കുണ്ട് അങ്ങനെ കുഴപ്പമില്ലാതെ നന്നായി എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി അത് നല്ലൊരഭിപ്രായമാണ് കാണുന്നവർക്കെല്ലാം അപ്പം നല്ലൊരു പ്രോത്സാഹനമാണ് എനിക്കിപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്